നമ്മള് നമ്മുടെ കുട്ടികളെ സ്കൂളില് വിടുന്നത് ആണെങ്കിലും അതൊക്കെ ഇംഗ്ലീഷ് മീഡിയത്തിലേ വിടുന്നുള്ളു മലയാളം മീഡിയത്തില് വിടുന്ന ആള്ക്കാര് കുറവാണ് കാരണം മലയാള ഭാഷയെക്കാലും ഇംഗ്ലീഷ് മറ്റുള്ള ഭാഷകള് പഠിച്ചാലേ നമുക്ക് മുന്നോട്ടുള്ള ഓരോ കാര്യങ്ങള് ചെയ്യാന് പറ്റുള്ളൂ ഭാവി തലമുറയെ വാര്ത്തെടുക്കാന് പറ്റുള്ളൂ എന്നൊക്കെ തെറ്റായ വിചാരങ്ങളാണ് ഓരോരുത്തരേയും മലയാളഭാഷ മറന്നു ഇംഗ്ലീഷ് മറ്റുള്ള ഭാഷകളില്ലേക്ക് നയിക്കുന്നത് നമ്മുടെ മാതൃഭാഷ എന്താണോ അതാണ് നാം കൂടുതലും സംസാരിക്കേണ്ടത് നാം കൂടുതലും പറയേണ്ടത് മലയാള ഭാഷ സംസാരിക്കുന്നത് എന്തോ നമുക്ക് നാണക്കേട് എന്ന രീതിയിലാണ് മിക്കവരും പറയുന്നത് ഇംഗ്ലീഷ് കുട്ടി കലര്ത്തി സംസാരിക്കുന്നു പലരും